ആ ഡോക്ടറേ ഭയങ്കര പനിയായിട്ട് അല്ല ഭയങ്കര പനിയും തലവേദനയും ചുമ ഒക്കെയാണ്

ഹ്മ് രണ്ട് മൂന്ന് ദിവസായി ഹ്മ് ആ വോമിറ്റിംഗ് ഉണ്ട്

ഹ്മ് പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിച്ചില്ല കഴിഞ്ഞ ദിവസം കുറച്ച് മഴച്ചാറൽ കൊണ്ടായിരുന്നു

ഭയങ്കര മൂക്കടപ്പും ഉണ്ട് കഫക്കെട്ടും അതായത് നമ്മൾ ചുമയ്ക്കുമ്പം ഒക്കെ കഫം ഇങ്ങനെ വരുന്നുണ്ട്

ഹ്മ് ഉണ്ട് ആ ഉണ്ട് ഓക്കെ എന്തൊക്കെയാണ് ഇടേണ്ടത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല തലവേദന ഉണ്ട്

ആയിക്കോട്ടെ

ഈ തുമ്മലിനും ജലദോഷത്തിനും ഉള്ള മരുന്നും കൂടെ വേണമായിരുന്നു തുമ്മലും തുമ്മ തുമ്മൽ ഉണ്ട് ജലദോഷവും ഉണ്ട് ചുമയും ഉണ്ട് ഓക്കെ ഡോക്ടർ താങ്ക് യൂ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡോക്ടർ ഓക്കെ താങ്ക് യൂ